ഹലോ ഗ്യാസേ ഏജന്സി അല്ലേ ഒത്തിരി കാര്യങ്ങള് നന്ദിയോടെ നിങ്ങളെ അറിയിക്കാനുണ്ട് എപ്പോള് വിളിച്ചാലും ഫോണെടുക്കുകയും ചെയ്യുന്നുണ്ട് ഏറെ താമസിയാതെ തന്നെയും ഗ്യാസിലണ്ടറിവിടെ വീട്ടിലെത്തിച്ച് എത്തിച്ച് തരുന്നുണ്ട് അയിലൊത്തിരി സന്തോഷകരമായ കാര്യം ആ ഗ്യാസേജന്സി അത് ഏജന്സി കൊണ്ടുവരുന്ന ഡെലിവറി വര് കൊണ്ടുവരുന്ന ആള്ക്കാര് തന്നെ സിലിണ്ടര് കൊണ്ടുവന്ന് വീട്ടില്വച്ച് ഗ്യാസ് സ്റ്റൗവായിട്ട് കണക്റ്റ് ചെയ്ത് ചെയ്ത് തരുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങളെ വിളിച്ച് അറിയിക്കാനാണ് ഞാനാഗ്രഹിക്കുന്നത് അവരില്നിന്നും യാതൊരുവിധ മോശമായ പ്രവര്ത്തിയും ഉണ്ടായിട്ടില്ല എപ്പോള് വിളിച്ചാലും ആ ആഴ്ച്ചേത്തന്നെ ഗ്യാസ് വീട്ടിലെത്തിക്കുന്നുണ്ട് തന് തന്നെയല്ല സിലണ്ടറെന്നേക്കൊണ്ടെടുപ്പിക്കാതെ അവര് തന്നെ കൊണ് അടുക്കളയില് കൊണ്ടുവന്ന് വച്ച് സ്റ്റൗവായിട്ട് കണക്ഷന് കൊടുത്ത് അത് കുറ്റകരമാ ആയ കുറ്റകരം അല്ലാത്ത രീതിയില് എല്ലാം ചെയ്തു തരുന്നുണ്ട് എന്റെ നന്ദി അങ്ങേയറ്റം അവരെ അറിയിച്ചു അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു